എനിക്കൊരു യൂണിഫോമ് തയ്യ്ക്കാൻ ഉണ്ടായിരുന്നു എനിക്ക് അടുത്ത തിങ്കളാഴ്ച്ച ആകുമ്പോഴേക്കും കിട്ടണം ജി എച്ച് എസ് എസ് മാനന്തവാടി അതെ സ്കിൻ ആക്കണം പാൻറ്റ് പിന്നെ അതുപോലെ ബട്ടൺസ് നമ്മള് വൈറ്റാണ് വരിക അത് ബ്ലാക്ക് ബട്ടൺസ് ആക്കണം അല്ല അല്ലല്ലാ അത് മാറ്റുന്നത് ആണ് ഇല്ല കുഴപ്പമില്ല ബ്ലാക്ക് ആക്കാം കുഴപ്പമില്ല ബ്ലാക്ക് ആക്കണം പിന്നെ ഫുൾ കൈ ആകണം അതെ പിന്നെ ഷർട്ടിൻ്റെ പോക്കറ്റിന് കീശ കീശ വേണം പോക്കറ്റ് വേണം അല്ല പാൻറ്റിന് ബാക്ക് സൈഡ് രണ്ട് പോക്കറ്റും വേണം അതെ പിന്നെ അതേപോലെതന്നെ എനിക്കൊരു ഡ്രെസ്സും തയ്യ്ക്കാൻ ഉണ്ടായിരുന്നു ഡ്രസ്സ്കോഡ് ആണ് അതെ ഡ്രസ്സ് അല്ല തിങ്കളാഴ്ച്ച അല്ല അതൊരു ഞായറാഴ്ച്ച ആകുമ്പോഴേക്കും വേണം സ്കിൻ പാൻറ്റിൽ സ്ക്രാച്ചുള്ള ടൈപ്പ് സ്റ്റിച്ചിങ്ങാണ് സ്ക്രാച്ച് വരുന്നത് അങ്ങനത്തെ ടൈപ്പ് പിന്നെ കുറച്ച് സ്കിൻ ആക്കണം അതേപോലെ ഷർട്ട് കുറച്ച് ഇങ്ങനെ കീശ ഫുള്ളായിട്ട് വരുന്നത് ആണ് ഫ്രണ്ടില് മൂന്ന് കീശ വരുന്ന ടൈപ്പാണ് താഴോട്ടേക്ക് അതെ ആറെണ്ണം വരുന്ന ടൈപ്പ് മൊത്തം ഫുൾ കീശ വരുന്ന ടൈപ്പ് ഇത് ഫുൾ കീശ വരുന്ന ടൈപ്പ് ഷർട്ട് ഷർട്ടില് രണ്ട് കീശ വൈറ്റ് സെൻറ്ററില് വരുന്നത്

അതേപോലെ തന്നെ ലൈനായിട്ട് പുറകിലും വൈറ്റ് വേണം സെൻറ്ററില് ബാക്കി ബ്ലാക്ക് അതെ പിന്നെ അതുപോലെ പാൻറ്റും അതേപോലെ ഫുൾ കീശ ഉള്ള ടൈപ്പ് അതും ഇതേപോലെ തന്നെ വരണം ഇത് ഇപ്പഴത്തേക്കാണ് കിട്ടുക

അതെ പിന്നെ റേറ്റ് എത്രയാന്ന് പറയുമോ

എന്നാൽ ഞാൻ നാളെ വരാം ഓക്കെ ശരി ഓക്കെ ഓക്കെ ഓക്കെ ശരി